ഞങ്ങളുടെ ഗ്രാമത്തില ആരാധനാമൂർത്തി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയാണ് അതായത് എനിക്കെന്ന് വെച്ചിട്ടിണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ അതായത് തറവാട്ട് അമ്പലത്തിൽ അതുപോലതന്നെ കൊടുങ്ങല്ലൂർ അമ്മന്നയാണ് ഈ കൊടുങ്ങല്ലൂർ അമ്മന്നയാണ് ഈ രാജ രാജേശ്വരി ദേവി അതാ ഞങ്ങളുടെ എൻ്റെ വീടിനടുത്ത് പൈങ്ങാട്ടിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ ഈ കൊടുങ്ങല്ലൂരമ്മാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തറവാട്ടിൽ ഇതാണ് അവിടെ ആചാരം എന്താന്നന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ഈ ഗുരുസി ഗുരുസീന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു അതായത് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പം ആ അമ്പലത്തിൽ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് കോഴീനെ അറവ് അതായിരുന്നു സംഭവം പിന്നെ ഞങ്ങളത് അതായത് അങ്ങനൊന്നും ഇല്ലാണ്ട് പിന്നെ ഞങ്ങൾ മാറ്റി അതായത് പുതിയ പ്രതിശു അതായത് പ്രതിഷ്ഠാദിനം ഒക്കെ കഴിച്ച് അതായത് അതായത് ഉച്ചപൂജ അതായത് ഉച്ച ഒരു മൂന്ന് മണി ആവുമ്പോഴത്തേക്ക് തീർക്കാവുന്ന രീതിയിൽ ഉച്ചപൂജ രാവിലത്തെ പൂജ അങ്ങനെയുള്ള രീതിയിലാക്കി പിന്നെ ഇപ്പം കലശാണ് അതായത് നൂറ്റി ഒന്ന് കലശം അതായത് ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന നൂറ്റി ഒന്ന് കലശം അതാണിപ്പം ആ ആ ഒരു പൂജ മാത്രമേ ഇപ്പം നമ്മൾ അവിടെ ചെയ്യുന്നുള്ളൂ